അതേലോ ആ ഓ ഓ അരുൺ സാറരുൺ സാറ് ആ വരാൻ പറയാറുണ്ട് പറയാറുണ്ട്

ആവൂ ആ അത് പറഞ്ഞോളൂ സാറേ കേൾക്കാം കുമ്പളം കുത്തിയാൽ മത്തൻ മുളക്കില്ലല്ലോ ആ ആ ആ ഉണ്ട് വേറ പല കാര്യങ്ങളും ഓ എൻ്റെ മകൻ തന്നെ ആ ആ ആ ഞാൻ പറയാം സാറെ ഞാൻ പറയാം പറഞ്ഞിട്ട് വലിയ കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല പക്ഷേ എന്നാലും ഞാൻ പറയാം ആ അവൻ്റെ മാർക്ക് വല്ലതും പബ്ലിഷ് ചെയ്തോ അവൻ ഫസ്റ്റ് സെമ്മിന് സെക്കൻ സെമ്മിത് വരെയായിട്ട് പബ്ലിഷ് ചെയ്തില്ലാന്ന് അവൻ പറഞ്ഞായിരുന്നു അപ്പോൾ അവൻ പറയാത്തതാണ് ആ അതെല്ലേ സ്റ്റാറ്റി സപ്പ്ളിയുണ്ട് സാറെ അവന് ഓ സപ്ലിയ്ള്ളോണ്ട് ക്രെഡിറ്റ് സ്കോറെത്രയാന്ന് അറിയാനും പറ്റത്തില്ലായിരിക്കുമല്ലേ ആ സാറെ അപ്പം അവൻ്റെ ഇമ്പ്രൂ അവൻ എവിടെ ഈ ലാപ്സ് വരുന്നതെന്ന് ഉള്ളതൊന്ന് പറയാമോ ആ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല അവൻ പറഞ്ഞിട്ടില്ല അതിന് ഞാൻ കൊടുത്തോളം സൈറ്റിൽ ആക്സസില്ലല്ലോ അതും തന്നിട്ടില്ല എനിക്ക് ഓ അത് ശരി അപ്പോൾ നമുക്ക് അതിന്റകത്ത് കയറി കഴിഞ്ഞാൽ മാർക്കും കാര്യങ്ങളൊക്കെ കാണാൻ ആ സാറെ അവന് അറ്റനൻസെന്തോരം ഉണ്ട് സിക്സ്റ്റി ത്രീയോ അവനെല്ലാ ദിവസവും ഇവിടെന്ന് കോളേജിലോട്ട് പോകണല്ലോ മുത്തച്ഛൻ മരിച്ചിട്ട് പത്ത് കൊല്ലമായി

ആ ആ ഭാര്യേന്റെ ഒപ്പിട്ടായിരിക്കും അതും ആ കള്ളം തന്നെയാണ് എല്ലാം ആ മൊത്തം ഉഡായിപ്പാണ് ഇറക്കി കൊണ്ടിരിക്കുന്നത് ആ ആ ഉണ്ട് ഉണ്ടുണ്ട് ഞാൻ ഞാൻ നോക്കിക്കോളാം സാറെ അല്ലേൽ ശരിയാവത്തില്ല പഠിത്തം എന്നാ ഉഴപ്പാന്ന് പറഞ്ഞാലും

എന്നാൽ അത് നമുക്ക് ശരിയാക്കാം സാറെ ഓ അത് ഞാൻ ഞാനും പണ്ട് ഡാൻസറായിരുന്നു അതിൻ്റെയാണ് ആ ആ ഞാൻ മരിയൻ കോളേജിലെ വലിയ ഡാൻസറായിരുന്നു

ഒന്ന് അന്വേഷിച്ചറിഞ്ഞാൽ അറിയാമായിരിക്കും ആ ആ പഠിത്തമാണ് സാറേ ഞാൻ നോക്കിക്കോളാം സാറെ അത് കൊള്ളാം ഓക്കെ താങ്ക് യൂ സാറേ ശരി കേട്ടോ ആ ഓക്കെ താങ്ക് യൂ